ഈ അടുത്ത കാലത്തായി ഈ പച്ചക്കറിക്കായാലും പലചരക്കിനായാലും നല്ല വില വ്യത്യാസം വന്നിട്ടുണ്ട് കാരണമെന്നു വെച്ചാൽ നേരത്തെ അൻപത് രൂപയ്ക്ക് കിട്ടുന്ന സാധനം ഇപ്പോൾ നൂറു രൂപയ്ക്ക് നൂറു രൂപ കൊടുത്താലും കിട്ടാനില്ല കാരണമെന്നു വെച്ചാൽ ഇപ്പം ത്തെ ഇപ്പം ഇപ്പം തമിഴ്നാട്ടിൽ നിന്നായാലും മറ്റുള്ള സ്ഥലത്തു നിന്ന് സാധനങ്ങൾ വരുന്നതു കൊണ്ട് അവരിപ്പം ഇവിടെ ഈ നമ്മൾ കടകളിലായാലും ഒരു ഹോൾ സെയ്ലായിട്ട് എടുക്കുമ്പോഴത്തേന് ഇവർ ചെറിയ ചെറിയ കച്ചവടക്കാരതിന് അതിൻ്റേതായ വില കൂട്ടുന്നു പിന്നെ ഹോൾ സെയിലായിട്ട് കൊടുക്കുന്നിടത്തും ഏകദേശം വലിയ വിലക്കുറവൊന്നും വരുന്നുമില്ല വെച്ചാൽ അതിനകത്ത് അവർക്കതിൻറ്റെ അവരുടെ ലാഭം നോക്കിയിട്ടാണ് അവർ വിൽക്കുന്നത് പക്ഷെ നമുക്ക് ഈ പാവപ്പെട്ട കുറച്ചാൾക്കാരുമുണ്ട് ചിലയാൾക്കാർ പാവപ്പെട്ടവർക്കാണേറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അന്നന്നുണ്ടാക്കുന്ന പൈസ കൊടുത്ത് ജോലി ചെയ്ത പൈസക്കു പോയി ഒറ്റ ഒരു പ്രാവശ്യം ഒന്നു കടയിൽ പോയാൽ മതി ആ പൈസ ഫുള്ള് തീരുന്നു പിന്നതിനകത്ത് ഓൺലൈൻ ഷോപ്പിംഗ് ഓൺലൈൻ ഷോപ്പിങ്ങും നല്ലതുമാണ് പിന്നതിനകത്ത് ചീത്തയുമുണ്ട് കാരണമെന്നു വെച്ചാൽ ഇപ്പോൾ ഈ നമുക്ക് നേരിട്ടു പോയി കടയിൽ പോയി നിന്ന് ക്യൂ നിന്ന് സാധനം മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല വീട്ടിൽ തന്നെ നമുക്ക് ഫോണിൽ ക്കൂടി നമുക്കിഷ്ടമുള്ള സാധനങ്ങൾ തിരഞ്ഞെടുക്കുന്നു അതവർ വീട്ടിൽത്തന്നെ കൊണ്ടു തരുന്നു നമുക്കത് വരുമ്പം പൈസ കൊടുത്താലും മതി പിന്നെ അതിനകത്ത് കുഴപ്പം ചിലപ്പോൾ നമ്മൾ ഓഡർ ചെയ്യുന്ന സാധനത്തെ അതിനകത്ത് ചിലപ്പോൾ നല്ല സാധനം വരും ചിലപ്പം സാധനം മാറി വ്യത്യാസം വരുന്നുണ്ട് മാറി വരുന്നുണ്ട് പിന്നെ അതിനകത്ത് വരുമെന്നു പറഞ്ഞാൽ നല്ല സാധനം അല്ലായിരിക്കും അങ്ങനത്തെ കുറച്ച് ദോഷങ്ങൾ മാത്രമേ ഉള്ളു പിന്നെ നമുക്ക് ഓൺലൈൻ ഇപ്പം വലിയ വലിയ കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ നല്ല സാധനങ്ങളൊക്കെയാണ് വരുന്നത് മെയിനായിട്ട് ഫുഡ് ഐറ്റംസൊക്കെയാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കുഴപ്പമായിട്ട് വരുന്നത്